ഒമ്പത് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് ഏഴ് ലക്ഷത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എൺപത്തി രണ്ട് എട്ട് എൺപത്തി രണ്ട് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് അയ്യായിരത്തി നാന്നൂറ്റി അൻപത്തി ആറ്